ദീർഘദൂര ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും ലഘുവായ ഭക്ഷണങ്ങൾ അതായത് ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും കട്ടി കുറഞ്ഞതുമായ ഭക്ഷണങ്ങളാണ് സാധാരണ ഉപയോഗിക്കാൻ നല്ലത് ഫ്രൂട്ട്സ്സ്കൾ ഉപയോഗിക്കാം ഫ്രൂട്ട്സ്സ്കൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി തരാൻ ഉപയോഗപ്രദമായതാണ് പിന്നെ പാനീയങ്ങൾ ഉപയോഗിക്കാം ജ്യൂസ്സ്കൾ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ്സ്കൾ ഉപയോഗിക്കാവുന്നതാണ് ഈ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ്സ്കള് തന്നെ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായ ഇതാണ് അപ്പോൾ നമുക്കത് കൂടുതൽ ഹെവിയായൊരു ഫുഡ്ഡ് അല്ലതാനും അപ്പോൾ ഹെവിയായ ഫുഡ്ഡ്കൾ കഴിക്കുന്നത് ഏറ്റവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത് പിന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടതായ ആവശ്യമുണ്ട് അപ്പം നമ്മളത് വെള്ളം ശുദ്ധമായ ജലം കരുതേണ്ടതാണ് ജലം കുടിക്കുന്നതോടുകൂടി നമുക്കതിൻ്റെ ഒരു എനർജി നമ്മുടെ ശരീരത്തിനുണ്ടാകും